നമ്മുടേ നാടിനടുത്തെന്നു പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിനടുത്തുള്ളതാണ് ബേക്കൽ കോട്ട അതുപോലെ കണ്ണൂർ സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ നമ്മൾ അധികവും വിസിറ്റ് ചെയ്യുന്നതാണ് സ്മാരകങ്ങളുണ്ട് പിന്നേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങൾ പള്ളികളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അതിൻ്റെ ചരിത്രങ്ങളെന്നു പറഞ്ഞാൽ ഇപ്പോൾ നമ്മളേറ്റവും ചുരുക്കിപ്പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ മാനന്തവാടിയാണ് നമ്മുടെ പഴശ്ശി കുടീരങ്ങളൊക്കെയുള്ളത് അതുപോലെ പഴശ്ശി കുടീരങ്ങൾ മാത്രമല്ല അതിൻ്റെ ചരിത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊരുപാട് നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ടെമ്പിള് ഇത് പിന്നെ നമ്മുടെ പിന്നെ വള്ളിയൂർക്കാവ് ടെമ്പിള് വള്ളിയൂർക്കാവ് ടെമ്പിളൊക്കെ ഉത്സവങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ വിവരിക്കാനൊന്നുമില്ല വിവരിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല ആ ഒരു ഉത്സവമൊക്കെ കൊണ്ടാടുന്നത് കേരളക്കാരുടെ അത്രയും വലിയൊരാഘോഷമാണ്